ഞാൻ ഒന്ന് കേരളം മുഴുവൻ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ചത് ആയിരുന്നു ആ ഓക്കെ

ആ ഓക്കെ

ആ ഓക്കെ ആ ഓക്കെ അപ്പം വേറെ സൈറ്റൊന്നും ഇല്ല ഐ മീൻ അമ്പലമല്ലാണ്ട് ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ നമുക്ക് എന്താ

ആ ഓക്കെ ഓക്കെ അതെയതെ ഒരു ടു മന്ത്സ് ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ നമ്മുടെ കൂടെ അല്ല പറഞ്ഞോ പറഞ്ഞോ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ നമ്മൾ എയർപോർട്ടിന്ന് വരുമ്പോൾ ഒരു ഒരു കാർ അയച്ചാൽ നല്ലതായിരുന്നു നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നത് ആ ഒക്കെ

ആ ആ ഓക്കെ അപ്പം ആ പറയാം ആ ആ ഓക്കെ ഓക്കെ